ഹലോ സാറെ ഞാന് റ്റിറ്റിയാണേ എനിക്ക് ഒരു വിവരം അറിയാന് വേണ്ടിയിട്ടായിരുന്നു സാര് ഞാന് വിദേശത്ത് പഠിക്കാനാഗ്രഹിക്കുന്നുണ്ട് ജര്മ്മനിക്ക് പോകണമെന്നാണാഗ്രഹിക്കുന്നത് ഇപ്പോള് ഞാന് ബി എസ് സി കഴിഞ്ഞു എം എസ് സിക്ക് പോവാന് വേണ്ടിയിട്ടായിരുന്നു ഫോറന്സിക് സയന്സാണ് പഠിക്കാനുദേശിക്കുന്നത് അപ്പോള് അതിന്റെയൊക്കെ ഡീറ്റേയ്ല്സെനിക്കൊന്ന് അറിഞ്ഞാല് കൊള്ളാമെന്നുണ്ട് ഇപ്പോള് പാസ്പോര്ട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോള് പാസ്പോര്ട്ട് അപ്ഡേറ്റ് ചെയ്യണം പിന്നതിന്റെയൊക്കെ ഡീറ്റേയ്ല്സ് അവിടെ ചെന്നാലേത് കോഴ്സ് ഈ ഫോറന്സിക് സയന്സിലൊക്കെ ചാന്സൊക്കെ എങ്ങനെയുണ്ട് പഠിക്കാനെങ്ങനെയുണ്ട് എന്നൊക്കെയോ സാറിനിതേപ്പറ്റി കൂടുതലായിട്ടറിയാമല്ലോ അതുകൊണ്ടാണ് ഞാന് വിളിച്ചത് സാറിതേപ്പറ്റി എനിക്കൊന്ന് പറഞ്ഞുതരണേ